ഞങ്ങളുടേത് ഒരു മലമ്പ്രദേശമാണ് അത് റോഡുകളുണ്ട് ഞങ്ങളുടെ വീടിന് മുമ്പില് കൂടെയും ഒക്കെ പോകുന്ന എല്ലാ റോഡുകളുടെയും സൈഡ് വഴി ഓട കൈ മനുഷ്യര് നിര്മ്മിതമായ ഓടകളുണ്ട് അത് മിക്കവാറും മണ്ണൊക്കെ വന്നു മൂടുമ്പോൾ അതായത് പ്രദേശത്തുള്ള വീട്ടുകാർ തന്നെ അതു പിന്നെ വെള്ളം ഒഴുകാന് തടസ്സം വരുമ്പോൾ അതു വൃത്തിയാക്കി ഇടാറുണ്ട് പിന്നെ ഞങ്ങളുടെ പ്രധാന പാതകളിലുള്ള റോഡുകളുടെ സൈഡിലും ഓട സര്ക്കാരിന്റെ വക പഞ്ചായത്തിന്റെ വക ഓട നിര്മ്മിച്ചിട്ടുണ്ട് ഓടയിൽ മാലിന്യങ്ങൾ കെട്ടികിടക്കുമ്പോൾ അതിനായിട്ട് പ്രത്യേകം ഹരിതസേനയും അങ്ങനെ പഞ്ചായത്തിന്റെ പ്രവര്ത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികളോ മറ്റുള്ളവരെക്കൊണ്ട് വര്ഷാ എല്ലാ വര്ഷങ്ങളും വര്ഷങ്ങളിലും മഴക്ക് മുമ്പും ഓടകളെല്ലാം വൃത്തിയാക്കി ശുചിയാക്കി മത് മണ്ണ് മൂടി കിടക്കുന്നവയൊക്കെ അതും വൃത്തിയാക്കി അങ്ങനെ ജലം കൂടുതൽ ആര്ക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലൊഴുകി അതിന്റെ തോടുകളിലോ കൈവഴി തോടുകളിലോ ക പിന്നെ ചെര് കൈവഴി ചെറിയ തോടുകളിലൊ അതായ തോടുകളിലോ ഒക്കെ ചെന്നുചേരത്തക്ക രീതിയിൽ എല്ലാ ഓട തെളിച്ചിടാറുണ്ട് കൂടുതല് മെച്ചപ്പെടുത്താനായിട്ട് റോഡുകളുടെ പിന്നെ സൈഡിൽ നന്നായിട്ട് ഓട കെട്ടി ആ ഒരു സംവിധാനം അതു മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാതെ പിന്നെ അതിനെ വെള്ളത്തിന്റെ ഒഴുക്കിനു തടസ്സം നിൽക്കാത്ത രീതിയിൽ ഒഴുകി പോകത്തക്ക രീതിയിൽ എല്ലാവരും നാട്ടുകാര്ക്ക് കൂടുതലവബോധം പഞ്ചായത്ത് വഴിയോ ആരോഗ്യ പ്രവര്ത്തകർ വഴിയോ ഹ ഹരിതസേനാ അംഗങ്ങൾ വഴിയോ തൊഴിലുറപ്പ് തൊഴിലാളികൾ വഴിയോ ഒക്കെ എല്ലാവരെയും ബോധവത്ക്കരിച്ചു കൊണ്ട് അതായത് ഇതു വെള്ളം ഒഴുകി പോയില്ലെങ്കില് അവിടെ ത റോഡിനും മറ്റുള്ള വിളകള്ക്കും പറമ്പിനുമൊക്കെ നാശമാണ് ഉണ്ടാകാന് പോകുന്നത് അതുകൊണ്ട് അങ്ങനെയാരും ചെയ്യരുതെന്നുള്ള ആ ഒരു ബോധവത്ക്കരണം നടത്തണം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റുമൊക്കെ ഓടകളിലേക്കു വലിച്ചറിയാതെ അതൊക്കെ അതായത് പ്രത്യേക സ്ഥാനങ്ങളുപയോഗിച്ച് കീപ്പ് ചെയ്തു സൂക്ഷിച്ച് വെച്ചിട്ടത് പിന്നെ അതിനെ ഡിസ്പോസ് ചെയ്യാന് പ്രത്യേക മാര്ഗ്ഗങ്ങൾ കണ്ടെത്തി അവിടെ കൊണ്ടു കളയും അങ്ങനെയൊക്കെ ചെയ്താൽ ഡ്രെയിനേജ് സിസ്റ്റം നന്നായിട്ടു പോകും വെള്ളം മഴ പെയ്യുമ്പോൾ ആര്ക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലൊഴുകി തോടുകളിലോട്ടു പോയി ചേര്ന്നോളും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം